അതായത് എനിക്ക് പിന്നെ അതായതെന്ന് ഞാൻ ചിത്രങ്ങൾ ഒരുപാട് വരയ്ക്കുമായിരുന്നു പണ്ട് തൊട്ടേ ഞാൻ അതായത് ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ ചെറിയ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു അപ്പം അത് കണ്ടിട്ടാണ് എന്നെ അച്ഛൻ ചിത്ര വര പഠിപ്പിക്കാൻ ഒക്കെ വിട്ടത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒന്നും ഇങ്ങനെ ആരെയും ഒന്നും ചിത്രകല പഠിപ്പിക്കാൻ ഒന്നും വിടാറില്ല പക്ഷേ എന്നെ അന്ന് അതായത് എന്നെ അതായത് എൻ്റെ എന്നിൽ ഒരു കഴിവ് കണ്ടതിൽപ്പിന്നെ എന്നെ അങ്ങനെ ചിത്രം വരയ്ക്കാൻ വിട്ടു പിന്നെ ഞാൻ അത്യാവശ്യം നല്ലവണ്ണം ചിത്രം വരയ്ക്കാൻ തുടങ്ങി പിന്നെ സ്കൂൾ പിന്നെ കാലഘട്ടത്തിൽ ഒക്കെ ആർട്സ് പരിപാടികളൊക്കെ വരുമ്പോൾ നമുക്ക് ചിത്രരചന മത്സരം അങ്ങനെയൊക്കെ വരും അപ്പം ചിത്രരചന മത്സരത്തിൽ ഒക്കെ പങ്കെടുത്ത് ഞാൻ ജില്ലാ സ്റ്റേറ്റ് അതായത് സ സബ് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് സ്റ്റേറ്റിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് എനിക്ക് സ്റ്റേറ്റിൽ നിന്നുവരെ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ നിമിഷം അതായത് എനിക്ക് മാത്രമല്ല ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കും അച്ഛനും എൻ്റെ സുഹൃത്തുക്കൾക്കും ഒക്കെ അഭിമാനം തോന്നിയ നിമിഷം അതായത് സുഹൃത്തുക്കൾക്ക് മാത്രമല്ല അതുപോലെ ടീച്ചർക്ക് അതായത് നമ്മുടെ സ്കൂളിലെ തന്നെ ഒരു അഭിമാനം തോന്നിയ നിമിഷം അതായിരുന്നു